ആ എന്നാ ഉണ്ട് വിശേഷം ആ ഞാൻ ആ ഒ കടയിലോട്ട് മഴയും വെള്ളമൊക്കെ അല്ലായിരുന്നൊ അപ്പം ഇച്ചിരി കഴിഞ്ഞ ദിവസം മേടിച്ച സാധങ്ങളൊക്കെ ഇരിപ്പുണ്ട് ആ വെള്ളമൊക്കെ ഇറങ്ങി പിന്നെ കഴിഞ്ഞ ദിവസം മേടിച്ച സാധനങ്ങളൊക്കെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അത് കൊണ്ടൊക്കെ അങ്ങ് ആ അതുകൊണ്ടൊക്കെ ആ ആ ആ ഇച്ചിരി വേവ് കൂടുതലാണ് ശകലം വേവ് കൂടുതലാണ് ഞാൻ വാങ്ങിച്ചിട്ട് അ ആ അ ആ വേവ് ആ അതെ വേവ് കൂടുതലാണ് ആ ആ ഉണ്ട് ഉണ്ട് നല്ല ചോറുണ്ട് ആ പിന്നെ നല്ല പൊലിപ്പുണ്ട് ആ അത് തന്നെ അല്ല വൃത്തിയുണ്ട് നല്ല വലിപ്പമുള്ള നല്ല വലിയ ചോറുവാണ് അരി അരി നല്ല അരി അരിയാണ്

ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന പിള്ളേർ പോവുമ്പോൾ ബുദ്ധിമുട്ടാണ് ആ അത് വെന്ത് വരാൻ താമസമാണ് ആ പാടാണ് ആ ഇന്നിപ്പം എനിക്ക് ഒരു ആ എനിക്ക് ഒരു ഗെസ്റ്റ് ഉണ്ട് അപ്പം ഒരു ബിരിയാണി വയ്ക്കണം അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടൊക്കെ വന്നതാണ് ബിരിയാണി അരി ഉണ്ടോ ആ അ ആ അ ആ ആ ആ രണ്ട് കിലോ എടുത്തൊ അതിന് പറ്റിയ ആ പറ്റിയ കിസ്മിസും ആ മുന്തിരിങ്ങയും പിന്നെ മസാലകളും എല്ലാമൊന്ന് എടുത്തൊ ആ ഹൽദി വരെയൊക്കെ ഉള്ളത് മതി ആ വല്ലപ്പോഴും

ആ അ ഉണ്ടല്ലെ ആ എന്ന കുറച്ച് എടുത്താൽ മതി ഇപ്പഴത്തേക്കുള്ളത് എടുത്താൽ മതി ആ പച്ചക്കറി വേണം ആ ബീൻസും ക്യാരറ്റും വേണം അത്യാവശ്യമായിട്ട് അതിനകത്ത് വേണമായിരുന്നു പിന്നെ സവോള വേണം ഇന്നലത്തെ സവോള അത്ര ശരി അല്ലായിരുന്നു കേട്ടൊ നല്ല സവോളയാണോ ഇപ്പോൾ വന്നിരിക്കുന്നത് ആ അ ആ അ ആ മതി കുറച്ച് മതി അ ആ ആ അത്രയും ആ മതി അത്യാവശ്യത്തിന് മതി അന്നെച്ച തക്കാളി ഇല്ലാതെ ചിക്കൻ കറി വയ്ക്കുന്നത് ശരിയല്ലല്ലോ

ആ കുറയുമ്പം അ ആ മാടിയ്ക്ക മേടിക്കാം കുറയുമ്പത്തേക്ക് മേടിയ്ക്കാം ആ അത്രയും മതി ആ അ വേറെ ഒന്നും വേണ്ട ഇത്രയൊക്കെ മതി അ ആ കുറച്ച് എല്ലാം മതി മതി കുറച്ച് കുറച്ച് മതി ഈ ആഴ്ചത്തേക്ക് മതി ഇതിനുള്ളത് മതി അ കുറച്ച് മതി ശരി എന്നാൽ ഓക്കെ എന്നാൽ എടുത്ത് വച്ചേരെ ഓക്കെ ഓക്കെ ആ ശരി